ഹലോ നിങ്ങള് ഫ്രീ ആണോ ആ എനിക്ക് കുറച്ച് കാര്യങ്ങള് പറയാൻ ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങളെ അടുത്ത് നിന്ന് കൊറച്ച് തെറാപ്പി ആവശ്യം ഉണ്ട് എൻ്റെ പേര് ശ്രേയ ആ എനിക്ക് ഞാൻ കല്ല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് വർഷം ആയി അപ്പം ആ റിലേഷൻഷിപ്പിൽ ഉള്ള കുറച്ച് പ്രശ്നങ്ങള് പറയാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പത്ത് വർഷം ഞങ്ങള് കല്ല്യാണം കഴിഞ്ഞ് പത്ത് വർഷം ആയിട്ട് ഉണ്ടെങ്കിലും നമുക്ക് തമ്മിൽ ഇപ്പം ഭയങ്കര ഡിസ്റ്റൻസ് ഫീല് ചെയ്യുന്നുണ്ട് ഒന്ന് സംസാരിക്കാൻ പോലും സമയം ഇല്ല ഭർത്താവ് ബിസിനസ്സ്മാൻ ആണ് ഞങ്ങള് കൊച്ചിയിലാണ് ആ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് രാവിലെ പുറപ്പെട്ടാല് വരാൻ രാത്രി ഒരു പതിനൊന്ന് മണി ഒക്കെ കഴിയും പക്ഷെ എനിക്ക് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ അതിന് മുന്നേ ഒര് നാല് മണി ഒക്കെ ആകുമ്പോൾ ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ എത്തും പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ടൈം ഷെഡ്യൂളിൽ ഒരു ഇഷ്യൂ ഉണ്ട് കാരണം അദ്ദേഹം ഒര് ബിസിനസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രെസ്സും ജോലീൻ്റെ സ്ട്രെസ്സും അവിടുത്തെ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂ കൊണ്ട് ആയിരിക്കും വീട്ടിലേക്ക് ദേഷ്യത്തോടെ കയറി വരുന്നത് അപ്പോൾ അവർക്ക് സ്ട്രെസ്സ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് ഉണ്ടാകും അപ്പോൾ കിടന്നു ഒന്ന് ഉറങ്ങണമെന്ന് ഉണ്ടാകും പക്ഷെ എൻ്റെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാൻ ടൈമ് ഇല്ല അതെ അത് ആണ് പ്രശ്നം സൺഡേ മാത്രമെ ലീവ് ഉള്ളു എനിക്ക് സൺഡേ മാത്രമെ ലീവ് ഉള്ളു അതെ അതെ രണ്ട് പേർക്കും ആ സൺഡേ രണ്ട് പേർക്കും അവധി ആണ് പക്ഷെ ഏകദേശ സൺഡേയിലും ബിസിനസ്സ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒക്കെ ട്രിപ്പോ അല്ലെങ്കില് അതും ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒര് ഇഷ്യൂ ആയിട്ട് അദ്ദേഹം വീട്ടിൽ ഉണ്ടാകാറില്ല എനിക്ക് ഒരു ആ

ഓക്കെ ശരി ഞാൻ നേരിട്ട് കാണാൻ വരാം ഓക്കെ ശരി